തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ട് വരുന്ന ഉപജീവന മാർഗ്ഗമെന്നു പറയുന്നത് ബിസ്സിനെസ്സ് അല്ലെങ്കിൽ വ്യവസായം എന്ന് വേണം പറയാൻ കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ തേടിപ്പോകുന്നത് അങ്ങനെയുള്ള ജോലികളിലേക്കാണ് കൂടുതൽ നമുക്ക് തൃശ്ശൂരിൻ്റെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഏറ്റോം കൂടുതൽ ബിസിനസ്സ് മാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നു തന്നെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തേടിപ്പോകുന്നത് സർക്കാർ ജോലികളോ സ്വകാര്യ ജോലികളോ അങ്ങനെ ഒന്നും അല്ല എന്നാലും അതിന് പോകുന്നവരുണ്ട് തൊഴിലില്ലായ്മ വ്യാപ വ്യാപകമായി കാണപ്പെടുന്നത് മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ആ തൊഴിലില്ലായ്മ എന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ നയിക്കുന്നത് ഇങ്ങനെയുള്ള സ്വയം പര്യാപ്തതയിലേക്കാണ് അവർക്കേറ്റവും കൂടുതൽ ചെയ്യാനിഷ്ടപ്പെടുന്നതും ബിസിനസ്സുകളാണ് ഇങ്ങനെയുള്ള രീതിക്കവർ ഡെവലപ്പായി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പണക്കാർ അല്ലെങ്കിൽ ബിസിനസ്സ് മാഗ്നെറ്റ്സുണ്ടാകുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നിന്നു തന്നെയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുണ്ടാകുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിലേക്കുള്ള ഡെവലപ്പ്മെൻറ്റിനും കാര്യങ്ങൾക്കുമൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഈ ഒരു വലിയ മഹത്തായൊരു കോണ്ട്രിബ്യുഷൻ അതിന് സഹായിക്കും ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത തേടി സ്വയം തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെയാണ് കൃഷിയെന്നുള്ളത് ഇവിടെ ഏറ്റവും കുറവായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ കടൽ ഭാഗം ഒരുപാടില്ലാത്തതിനാൽ മത്സ്യകൃഷി അതേപോലെ മത്സ്യത്തൊഴിലാളികൾ കുറവായിട്ടാണ് കാണപ്പെടുന്നത് അതേപോലെതന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ബിസിനസ്സ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സാംസ്കാരിക നഗരമായി തൃശ്ശൂർ മാറാൻ കാരണം കൂടുതൽ സ സർഗ്ഗാത് സർഗ്ഗാത്മകത ബോധത്തിലേക്ക് തിരിയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലുള്ള ആളുകൾ തിരഞ്ഞടുക്കുന്നത് ബിസിനസ്സ് തന്നെയാണ് എന്തുകൊണ്ടുമത് തൃശ്ശൂർ ജില്ലയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും